പഴയകാലത്തെ ജീവിതത്തിന് ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ ഇന്നത്തെ ജീവിത രീതിയിൽ വന്നിട്ടുണ്ട് പഴയ കാലത്ത് നമുക്ക് വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അല്ലേ നമ്മളെന്തിനും നമ്മൾ ആശ്രയിച്ചിരുന്ന നമ്മൾ നടന്ന പോകാനായിട്ടൊക്കെയാണ് നമ്മൾ ആഗ്രഹി നടന്നു പോകേണ്ടൊക്കെ ഒരു കാലമുണ്ടായിരുന്നു ആൾക്കാർ പല കാര്യങ്ങൾക്കായും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോകുന്നു വളരെ ദീർഘദൂരം യാത്ര ചെയ്യാറുണ്ടായിരുന്നു കൂടാതെ പിന്നെ പഴയ കാലത്ത് വെച്ചാൽ ഉപകരണങ്ങൾ വീട്ടുപകരണങ്ങൾ നമ്മൾ പാചകത്തിന് ഉപയോഗിച്ചിരുന്നതെല്ലാം വളരെയധികം വ്യത്യാസങ്ങൾ പഴയകാലത്തെ ജീവിത പഴയകാലത്ത് ഉണ്ടായിരുന്നു അതായത് നമ്മൾ പഴയകാലത്ത് കൂടുതൽ ആൾക്കാർ തീയൊക്കെ ഊതി അടുപ്പിൽ പാചകം ചെയ്തിരുന്നത് തീ കത്തിച്ച് ഒക്കെ വളരെയധികം കഷ്ടപ്പെട്ടാണ് പക്ഷേ ഇപ്പോൾ കാല എന്നു പറയുമ്പോൾ ആൾക്കാർക്ക് എല്ലാറ്റിനും ഗ്യാസ് അങ്ങനെയുള്ള മോഡേണായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഇപ്പോൾ പ്രാബല്യത്തിൽ ഉണ്ട് ഇപ്പോൾ കൂടുതലാൾക്ക് ഇപ്പോൾ അടുപ്പിൽ തീ കത്തിച്ച് പാചകം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ പഴയകാലത്ത് നോക്കുമ്പോൾ ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാർ പാചകം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങൾ നടത്തിയിരുന്നത് പറമ്പിൽ നിന്നു കിട്ടുന്ന വിറകൊക്കെ ഉപയോഗിച്ചും ഒക്കെയാണ് അപ്പം ആ ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം രോഗങ്ങളൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്നു പറയുമ്പോൾ എല്ലാം നമ്മൾ ന്യൂ ജനറേഷൻ എന്നു പറയുമ്പോൾ നമ്മളെല്ലാം നമ്മളെ ശരീരത്തിനൊരു വ്യായാമമില്ല പല കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ വളരെയധികം ലാഘവത്തോടെ അപ്പം നമുക്ക് ഒരു എക്സസൈസും ഇല്ല നമുക്ക് പഴയ കാലത്ത് ഒത്തിരി പേർക്ക് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഒത്തിരി ഒത്തിരി രോഗങ്ങൾക്ക് കാരണം പഴയകാലത്തെ ആൾക്കാർക്ക് രോഗങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോൾ എന്ത് എന്തു കൊണ്ടും എന്നു വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത പഴയകാലത്തെ ജീവിതമാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് പിന്നെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് നമ്മുടെ ജോലി ഭാരം കുറയ്ക്കാൻ സാധിക്കുന്നു ഇപ്പം ജോലിക്കൊക്കെ ദൂരെ പോകുന്നവരും രാവിലെ എണീറ്റ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനും ദൂരയാത്ര പോകുമ്പോഴൊക്കെ പെട്ടെന്നു നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച് ഉണ്ടാക്കും നമുക്ക് വളരെയധികം സമയം അതിനു വേണ്ടി വേസ്റ്റാകും അപ്പോൾ നമുക്ക് ഗ്യാസുണ്ട് മിക്സി ഗ്രൈൻ്റർ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ജോലി തീർത്ത് നമുക്ക് എത്തേണ്ടിടത്ത് എത്താൻ സാധിക്കുമെന്നുള്ളത് ഒരു നേട്ടമാണ് പക്ഷേ നേട്ടങ്ങളോടൊപ്പം കോട്ടങ്ങളും രണ്ടുമുണ്ട് പഴയകാലത്തെ ജീവിത രീതിയും പുതിയ രീതിയും നോക്കുമ്പോൾ രണ്ട് നേട്ടമുണ്ട് കോട്ടമുണ്ട് പഴയകാലത്ത് അസുഖം കുറവായിരുന്നു ഇപ്പോൾ ഒത്തിരി ഒത്തിരി രോഗങ്ങൾക്ക് നമ്മൾ നമ്മൾ ഒത്തിരി ഒത്തിരി രോഗങ്ങൾക്ക് അടിമയാണ് എന്തു കൊണ്ടും നല്ലത് പഴയകാലമാണ് എൻ്റെ അഭിപ്രായം